അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോന്ന് വെച്ചു കഴിഞ്ഞാല് ഉണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ മീറ്റിങ്ങില് ആയിരുന്നു കൂടുതലായിട്ടും ഞാൻ പങ്കെടുത്തു കൊണ്ടിരുന്ന അതില് നമ്മള് നല്ലൊരു അനുഭവം ആയിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ അവർ ഒരു ലിങ്ക് ഇട്ടുതരും ആ ലിങ്കില് നമ്മള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നേരിട്ട് അവര് എന്ത് പറയുക ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൻഡോയും കാര്യങ്ങളും ഒക്കെ വരും നമുക്കിപ്പം വേണമെങ്കില് ഫോണിലാണെങ്കിലും ലാപ്പിൽ ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അതിൽ നിന്നും നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങള് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് അവര് ഇപ്പം ലാപ്പിലാണെങ്കില് അവര് ഓരോ പ്രോജക്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി നമ്മുക്ക് കാണിച്ച് തരാൻ വേണ്ടി സാധിക്കും ഈ കൊറോണ ടൈമിലാണ് കൂടുതലായിട്ടും ഓൺലൈൻ വഴിയുള്ള മീറ്റിംഗ് കാര്യങ്ങള് ഇപ്പം ക്ലാസ്സാണെങ്കിൽ ഒക്കെ ഗൂഗിൾ മീറ്റ് വഴിയാണ് കൂടുതലായിട്ടും നടക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അവർ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടീട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മുക്ക് അത് ഗൂഗിൾ മീറ്റ് വഴി തന്നെ കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതിനുള്ള ഒരു ആപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഗൂഗിൾ മീറ്റ് തന്നെയൊരു ആപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്